ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങൾക്കിടയില് സാംസ്കാരിക വിനിമയത്തിലും ആശയ വിനിമയത്തിലും മലയാള ഭാഷ ഒരുപാട് പങ്കു വഹിക്കുന്നുണ്ട് മലയാള ഭാഷ എന്നുപറയുന്നത് ഒരു ദ്രാവിഡ ഭാഷയാണ് ഇന്ത്യയില് ഇരുപത്തിയെട്ടു സംസ്ഥാനങ്ങളുണ്ടെങ്കിലും ആ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളുടെ ഭാഷയ്ക്ക് അധികം പ്രാധാന്യം ഉണ്ടെന്നു ഞാന് കരുതുന്നില്ല അതില് കുറേ ഭാഷകൾ ദ്രാവിഡ ഭാഷകളായിട്ടും ശ്രേഷ്ഠ പദവി കൊടുത്തു കുറേ ഭാഷകളെ തെരഞ്ഞെടുത്തിട്ടുണ്ട് അങ്ങന തിരഞ്ഞെടുത്തിരിക്കുന്ന ശ്രേഷ്ഠ പദവി കൊടുത്തു തെരഞ്ഞെടുത്തിരിക്കുന്ന ഭാഷയിലൊന്നാണ് മലയാള ഭാഷ കേരളത്തിൽ സംസാരിക്കുന്ന മലയാള ഭാഷ എന്നു പറയുന്നത് ആ മലയാള ഭാഷ കേരളത്തിനു മാത്രമല്ല ഒരുപാട് മലയാളികളെവിടെയുണ്ടോ അവിടെയെല്ലം ഈ ഭാഷ സംസാരിക്കപ്പെടുന്നുണ്ട് അത് കേരളത്തില് മാത്രമായിട്ടല്ല കേരളത്തിനു വെളിയിലും ഇന്ത്യ മുഴുവനിലും ഇന്ത്യയില് പല സംസ്ഥാനങ്ങളിലായിട്ടും ഈ ഭാഷയ്ക്കു നല്ലൊരു പ്രാധാന്യം കൊണ്ടു വന്നിട്ടുണ്ട് പിന്നെ മലയാള ഭാഷ എന്നു പറയുന്നതും സാംസ്കാരിക വിനിമയത്തില് ഒരുപാടുപയോഗിക്കുന്ന ഒന്നാണ് ആശയ വിനിമയത്തിനാണെങ്കിലും മലയാള ഭാഷ ഒരുപാട് അതില് പങ്കു വഹിക്കുന്നുണ്ട് നമുക്കറിയാം ഇന്ത്യയില് ഏറ്റവും കൂടുതലായി സംസാരിക്കപ്പെടുന്ന ഭാഷയെന്നു പറയുന്നത് ഹിന്ദിയാണ് എന്നാല് എല്ലാവർക്കും ഉചിതമായ രീതിയില് ഉചിതമായ രീതയില് തന്നെ ഹിന്ദി ഭാഷ കുട്ടികൾക്കു പഠിക്കാനും ഒക്കെയുണ്ട് എന്നാൽ കേരളത്തിൽ മാത്രമാണീ മലയാള ഭാഷ സംസാരിക്കുന്നത് എന്നാലെല്ലാവർക്കുമിഷ്ടമുള്ളതും വേറെ സംസ്ഥാനക്കാരാണെങ്കിലും അവർക്കെല്ലാം ഇഷ്ടമുള്ളതും പഠിച്ചെടുക്കാന് എളുപ്പമുള്ളതും ആയൊരു ഭാഷയാണ് മലയാള ഭാഷ എന്നു പറയുന്നതും അതുപോലെ ഏതെല്ലാം ഇൻഡസ്ട്രികളിലോ വിപണന രംഗത്ത് ഒക്കെയാണെങ്കിലും ആ ഒരു ദേശീയ ഭാഷ ഹിന്ദിയാണെങ്കില് ഹിന്ദി മാത്രമല്ല എല്ലാവരും സംസാരിച്ചു പോവുന്നത് മലയാളം കൂടിയതില് ആഡെയ്തു തന്നെ പോവുന്നുണ്ട് ഒരു ഫോൺ വഴി ഒരു ഉദാഹരണമായി പറഞ്ഞാല് ഒരു ഫോൺ വിളിക്കും നമ്മള് ആദ്യം കേൾക്കുന്നത് ഹിന്ദി ഭാഷയിലായിരിക്കും ഫോൺ വിളിക്കാന് പോകുന്നതിൻ്റ പരസ്യം കേൾക്കുന്നത് എന്നാൽ അതിനുശേഷം ഇംഗ്ലീഷിൽ നമുക്കറിയാം പൊതുവായ നമ്മുടെ ലോകത്ത് എറ്റവും കൂടുതലായി ആളുകൾ സംസാരിക്കുന്ന ഒന്നാണ് ഇംഗ്ലീഷ് ഭാഷ എന്നു പറയുന്നത് ആ ഇംഗ്ലീഷ് ഭാഷയും കഴിഞ്ഞുകഴിഞ്ഞാല് പിന്നെ കേൾക്കാവുന്നൊരു ഭാഷയാണ് മലയാളമെന്നു പറയുന്നത് അപ്പോള് മലയാളത്തിന് എത്ര മാത്രം അംഗീകാരം എല്ലാവരും കൊടുക്കുന്നുണ്ട് നൽകുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കു മനസ്സിലാക്കാൻ സാധിക്കും ആശയ വിനിമയത്തിനാണെങ്കിലും മലയാളികൾ ഒരുപാടുപയോഗിക്കുന്ന ഭാഷയാണ് മലയാളികൾ മാത്രമല്ല വേറെ സംസ്ഥാനക്കാര് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ എളുപ്പമായി സംസാരിക്കാൻ എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഷയാണ് മലയാള ഭാഷ എന്നു പറയുന്നത് പിന്നെ ഇന്ത്യയുടെ പല ഭാഗങ്ങളില് ഇപ്പോള് ഹിന്ദിയാണെങ്കിലും ഹിന്ദി എല്ലാവർക്കറിയാം എന്നാലും മലയാളം പഠിച്ചെടുത്തവര് അതു തന്നെ സംസാരിക്കാൻ നോക്കാറുണ്ട് കേരളത്തിലേക്കും കൂടുതലാള് ഭാഷയുടെയൊരു പ്രാധാന്യം കൊണ്ടു തന്നെ കേരളത്തിലേക്കു വേറെ സംസ്ഥാനങ്ങളില്നിന്നും കൂടുതലാൾക്കാര് ഇന്ന് കേരളത്തെ സ്നേഹിച്ച മലയാള ഭാഷയെ സ്നേഹിച്ച് ഒരുപാടാൾക്കാര് വരുന്നതായി കാണാറുണ്ട് അതുപോലെ കലാരംഗത്താണെങ്കിലും മലയാള ഭാഷ മലയാള കഥകളി കൂടിയാട്ടം ഇങ്ങനെയുള്ള നൃത്തരൂപങ്ങളില് നമുക്കറിയാം മലയാള ഭാഷയാണ് കൂടുതലുപയോഗിക്കുന്നത് മലയാളത്തിൻ്റെ കൃത്യമായ ഭാഷയാണുപയോഗിക്കുന്നത് അപ്പോഴാ ഭാഷ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ആ ഒരു നൃത്തരൂപങ്ങളിഷ്ടമാവും അങ്ങനെയൊക്കെ ഇന്ത്യയില് വിവിധ ഇടങ്ങളില് കലാരൂപങ്ങള് നടത്തിക്കൊണ്ടുപോകാറുണ്ട് ആ കലാരൂപങ്ങളിലൂടെ ഈ മലയാള ഭാഷ എല്ലാവരിലേക്കെത്തിപ്പെടാറുണ്ട് പ്രതിഫലിക്കാറുണ്ട് അതു തന്നെ മലയാള ഭാഷയ്ക്കൊരു അംഗീകാരമാണ് ഇങ്ങനെ മലയാള ഭാഷ പല രീതിയില് ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളില് അതു സംസ്കാരിക രീതിയിലാണെങ്കിലും ആശയവിനിമയത്തിനാണെങ്കിലും ഒരുപാട് മലയാള ഭാഷ അംഗീകരിക്കപ്പെടുന്നുണ്ട്